നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിലെ തൊഴിൽ വിപണി നേരിടുന്ന പല വിധ പ്രശ്നങ്ങളും നമ്മൾക്കിപ്പം കാണാൻ സാധിക്കുന്നുണ്ട് നമ്മള് ഒരാൾക്കും ഇവിടെ ഒരാൾക്കും ഇവിടെ ജോലി പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല ആ ഒരവസ്ഥയാണ് ഇപ്പം നമ്മുടെ നിലവില് ഇന്ത്യ നേരിടുന്നത് ഒന്നെല്ലങ്കിൽ ജോലി കിട്ടില്ല അല്ലെങ്കിൽ നമ്മള് പഠിച്ച ഡിഗ്രിക്കൊത്ത ജോലി കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ കുറെ പേര് ബി ടെക്കായാലും എൽ എൽ ബി ആയാലും എം ബി ബി എസ്സായാലും പഠിച്ചിട്ട് ഏറെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവര് പണിയില്ലാതെ ജോലിയില്ലാതെ പുറം രാജ്യങ്ങളിലേക്ക് പോയി ജോ ജോലി ചെയ്യണ്ട അവസ്ഥ നമ്മളിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് രണ്ട് കരണങ്ങളാണ് ഉള്ളത് ഒന്ന് ഇന്ത്യയിലെവിടെയും ജോലി കിട്ടാനില്ല അതന്യമാണ് ഏറ്റവും വലിയ കാരണം എവിടെ പോയാലും നമുക്ക് ജോലിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ശമ്പളം ഉണ്ട് പുറം രാജ്യങ്ങളിലേക്ക് പോയാൽ കൂട്ടി കിട്ടും ശമ്പളം എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇന്ത്യയിൽ പല വിധം നമ്മള് നേരിടുന്ന ഒരു പ്രശ്നങ്ങളിലേറ്റവും വലിയൊരു പ്രശ്നമാണ് പ്രശ്നം തന്നെയാണീ തൊഴിൽ വിപണിന്റെ ഉള്ള നമ്മള് നേരിടുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അതായത് നമ്മൾ കഷ്ടപ്പെട്ട് എം ബി ബി എസ്സാണെങ്കിലും ബി ടെക്കാണെങ്കിലും എഞ്ചിനിയറിങ്ങ് ആണെങ്കിലും ഏത് തന്നെയാണെങ്കിലും നമ്മള് കഷ്ടപ്പെട്ട് നാല് കൊല്ലം മൂന്ന് കൊല്ലം അഞ്ച് കൊല്ലമൊക്കെ പഠിച്ചിട്ട് നമ്മൾക്ക് ആ കഷ്ട്ടപെട്ടതിന് വർത്ത് ആയിട്ടുള്ളൊരു ജോലി ഇന്ത്യയിലെവിടേയും നമുക്ക് കിട്ടുന്നില്ല അത് ഭയങ്കര പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ മെൻറ്റൽ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മള് നാല് കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ച് കുറെ കാശൊക്കെ ചെലവാക്കി പഠിച്ചിട്ട് അതിൻ്റെരു ഗുണം ജോലിയിൽ നമുക്ക് കിട്ടുന്നില്ലാ എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു വിഷമം വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ഒരു നാല് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ പഠിച്ചിട്ട് പുറം രാജ്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ജോലി തേടി പോകുവാണ് അതെന്ന് പറയുമ്പോൾ ശരിക്കും ഒര് ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഒരു വലിയൊരു ഇമ്പാക്ട് തന്നെയാണ് ഇന്ത്യ എന്ന രാജ്യത്തില് ഉണ്ടാക്കുന്നത് അതാണെനിക്ക് പറയാനുള്ളത്